ആ പിന്നേ ആ നിങ്ങളുടെ ആ മറ്റേ പഞ്ചായത്തില്ലേ തൊട്ടടുത്ത പഞ്ചായത്തിൽ കിടക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ഒരു മൂന്നാല് ഏക്കർ ഒരുമിച്ച് കിടക്കുന്നില്ലേ ആ പൊ ആ ഭാഗമേ അത് അവിടെ നമുക്ക് വിൽക്കുന്നതിനെ കുറിച്ച് എന്തും ആശയം വല്ലതും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അവർക്ക് ചില ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ആ സ്ഥലം കിട്ടുവാണെങ്കിൽ എന്താണെന്നുള്ളത് പറയാം എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അത് വിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടോ അത് എങ്ങനെയാണ് എന്നാ വിലയ്ക്ക് കൊടുക്കും എന്നതിനെക്കുറിച്ച് ഒരു സൂചന പറയാമോ

അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പാർട്ടി ഉണ്ട് ആ കുഴപ്പമില്ലാത്ത പാർട്ടി ആണ് സാമ്പത്തികം ഉണ്ട് ഒരു മോശക്കാരല്ല ഒരുവിധം മാന്യൻമാർ ആണ് അപ്പോൾ ഞാൻ അവരെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവരട്ടെ അപ്പം നമുക്ക് അതേക്കുറിച്ചൊന്ന് അവർ അവർ റിയൽ എസ്റ്റേറ്റ് അവർ വീട് വെച്ച് കൊടുക്കുന്നു എന്നാണ് എന്നോട് സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ട് പേരുടെയും പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടൊന്നും അങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടി ആണ് സ്ഥലം കൂടുതൽ വേണം വില്ലകളായിട്ടോ ആ അത് ആ അതെ അതെ ആ അത് അവർ ചെയ്യ് ലേയൗട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ അങ്ങനെ ഓരോ പ്ലോട്ട് മാർക്ക് ചെയ്ത് ഒരു പിന്നെ മാപ്പ് പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് തരാം അങ്ങനെ അതനുസരിച്ച് നമുക്ക് വിലയിടാം അപ്പം വിലയിടുന്നതിന് അതൊരു ആവശ്യമായിരിക്കുമല്ലോ അതിനെ പ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും അതുപോലെ വഴി ഒക്കെ വരുമ്പം കാണുമ്പം നിങ്ങൾക്ക് ആണെങ്കിലും ഒരു വിലയൊക്കെ അതിന് മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ആ പാർ ആ ഇല്ലില്ല അത് ഞാൻ ഏറ്റു സെ സെമിത്തേരി സെമിത്തേരി വല്ലതും പണിയാൻ പറ്റും ആ ശരി ആ ആ കാര്യം ഇത്രയേ ഉള്ളൂ അവർക്ക് എന്താണ് പിന്നെ വീടുകൾ വെച്ച് കൊടുക്കാനാണ് ആ വീടുകൾ ഒരു നല്ല നല്ല നല്ല രീതിയിലുള്ള വീടുകൾ വെച്ചിട്ട് നല്ല പാർട്ടിയെ കൊണ്ട് വരാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അത്ര മോശം ആളല്ല അപ്പോൾ അദ്ദേഹം വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് അത് അദ്ദേഹത്തിന് നല്ല ആൾക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പം എന്നെ അത്ര വിശ്വാസം ഉണ്ട് അപ്പം ഞാനിപ്പം അവരുമായിട്ട് അങ്ങോട്ട് വരാം അവരുമായിട്ടേ അവർ ആ അവരുമായിട്ട് വന്നിട്ട് നമുക്ക് ആ ഞങ്ങൾ ആ എന്നാൽ അടുത്ത ആഴ്ച്ച സൗകര്യപ്പെടുമോ അങ്ങനെയൊരു ഡേറ്റ് തരാമെങ്കിൽ ഞാൻ അവരെ ആ ആ ആ ആ ആ ആ അവരോട് ഞാൻ പറയാം ഞാൻ പറയാം അപ്പോൾ ഞാനും കൂടെ വരാം ആ വന്ന് കണ്ടിട്ട് ചെയ്യാം ശരി ശരി ശരി ഓക്കെ